എൻ്റെ പ്രീയപ്പെട്ട ബൈക്കുകളിൽ ഒന്ന് റോയൽ എൻഫീൽഡുകളുടെ ബൈക്കുകളാണ് റോയൽ എൻഫീൽഡ് ബൈക്കുകൾ നിരവധിയുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റുകൾ സ്ക്രാബ്ലെറുണ്ട് മീറ്റിയാറ് ഫോർ ഫിഫ്റ്റി പുതിയ രീതിയിലുള്ള ഇൻ്റർസെപ്റ്ററുണ്ട് കോണ്ടിനെൻ്റൽ ജി പി പിന്നെയേതാണ് ഷോർട്ട്ഗൺ സിക്സ് ഫിഫ്റ്റി ഗൊറില്ല ഫോർ ഫിഫ്റ്റി സ്ക്രാബ്ലെർ ഫോർ ഫിഫ്റ്റി പിന്നേ റോയൽ എൻഫീൽഡിൻ്റെ നിർവധിയായ ബൈക്കുകളുണ്ട് അതുപോലെ തന്നെ നിരവധി ബൈക്കുകൾ ഉള്ളപ്പോൾ തന്നെ വേറെയും കമ്പനികളുടെ ബൈക്കുകൾ എനിക്ക് ഇഷ്ടമാണ് ഹാർളി ഡേവിഡ്സണും കവാസാക്കി നിഞ്ച വേറെ കവാസാക്കിയുടെ പിന്നേ ബി എം ഡബ്ള്യുവിൻ്റെ ബൈക്കുകളുണ്ട് പിന്നെ ബി എം ഡബ്ള്യുവിനൊക്കെ നിരവധിയായ ബൈക്കുകളുണ്ട് അതുപോലെ തന്നെ ട്രയമ്പ് ട്രയമ്പിൻ്റെ ട്രയമ്പിൻ്റെ നിരവധിയായ ബൈക്കുകൾ എനിക്കിഷ്ടമാണ് നമക്ക് ഇനി എടുക്കാനുള്ള ആഗ്രഹം ഇപ്പോൾ എടുക്കാനുള്ള ആഗ്രഹം പറയുന്നത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ സ്ക്രാബ്ളർ ആ ബൈക്കുകളൊക്കെ എടുക്കാനാണെനിക്ക് താല്പര്യം എൻ്റെ സ്വപന ബൈക്കെന്നു പറയുന്നത് ഹാർലി ഡേവിഡ്സൻ്റെ അയൺ എയിറ്റ് എയ്റ്റി ത്രീയാണ് പിന്നെ ബി എമ്മിൻ്റെ ഒരു ബൈക്ക് വേണം ബൈക്ക് യാത്രകൾക്ക് സൗകര്യപ്രദമായ ബൈക്കുകൾ നിരവധി രീതിയിലുള്ള ബൈക്കുകളുണ്ട് റോയൽ എൻഫീൽഡിൻ്റെയാണെങ്കിൽ തന്നെയും ഓഫ്റോഡിന് പറ്റിയ വണ്ടിയാണ് ഹിമാലയൻ സിക്സ് ഫിഫ്റ്റിയെന്നു പറയുന്നത് അല്ല ഹിമാലയൻ ഫോർ ഫിഫ്റ്റി അതുപോലെതന്നെ നമുക്ക് ഒരു യാത്രാസുഖം അന്വേഷിക്കുന്നതെങ്കിൽ മീറ്റിയോർ മീറ്റിയോറെന്നു പറയുന്നത് മീറ്റിയോർ ത്രീ ഫിഫ്റ്റിയുണ്ട് സിക്സ് ഫിഫ്റ്റിയുണ്ട് യാത്രാ സുഖമാണ് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ യാത്രാ സുഖമായ നിരവധി വേറെ വണ്ടികളുണ്ട് ഹാർളി ഡേവിഡ്സണാണെങ്കിലും വണ്ടികളുണ്ട് പിന്നേ ഹാർളിയും റോയൽ എൻഫീൽഡ് തന്നെയല്ല നിരവധിയായ ബജാജിൻ്റെ വണ്ടികളുണ്ട് ഡോമിനോറ് പിന്നേ വേറെ ബജാജിൻ്റെയല്ലാതെ തന്നെ പഴയ ചില വണ്ടികളിലേക്ക് വരികയാണെങ്കിൽ പാഷൻ പ്രോയ് സ്പ്ലെൻണ്ടറ് ഇതൊക്കെ നല്ല യാത്ര യാത്ര സുഗമോ ആ യാത്ര സുഖമുള്ളതാണ് ഇങ്ങനെ ഒരു ദൂരെ യാത്രയ്ക്കൊക്കെ പോവാനായ നിരവധി വണ്ടികളുണ്ട് പല പല ആവശ്യങ്ങൾക്കായി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിരവധി ബൈക്കുകളുണ്ട് അതിലെൻ്റെ ഏറ്റും പ്രിയപ്പെട്ട രണ്ടു ബൈക്ക് കമ്പനികളായ റോയൽ എൻഫീൽഡും പിന്നെ ഹാർളി ഡേവിഡ്സനും ആണ്